എനിക്ക് പിന്നെ പാചകം എന്ന ഒരിത് ഒരു കല അതൊരു കലയായിട്ട് തന്നെ കാണാനാണ് കാരണം എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അതൊരു കഴിവാണ് എല്ലാവർക്കും കൃത്യ പാകത്തിന് ഇത്ര പേർക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കണം എന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് എല്ലാവർക്കും ആ കഴിവുണ്ടാകണം എന്നും ഇല്ല അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ അമ്മയിൽ നിന്നല്ല എനിക്ക് കുറച്ചു മടിയുള്ള കൂട്ടത്തിലൊക്കെയായിരുന്നു ഞാൻ പഠിച്ചത് യൂട്യൂബുകൾ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് യൂട്യൂബിൽ നിന്നാണ് കൂടുതൽ ചില ഡിഷൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ തുടങ്ങി അങ്ങനെ സ്റ്റാർട്ടിങ്ങ് തുടങ്ങിയതാണ് പിന്നെ അമ്മയുടെ നിർദേശം അമ്മയോട് ചോദിക്കും അമ്മേ ഇങ്ങനെത്തന്നെയാണോ ഇനി എന്താ ചെയ്യണ്ടേ ഇതിനെന്താ ചേർക്കണ്ടേ ഓരോന്നും ഉണ്ടായിക്കഴിയുമ്പോൾ അങ്ങനെ ചോദിച്ച് ചോദിച്ച് അതൊരു ഹോബിയായി മാറി പിന്നെ വെറൈറ്റി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി കാരണം അവർ നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം കൊള്ളാം ഇതിൽ കുറച്ചും കൂടി കൂടണം ഓക്കേ അടുത്തപ്രാവശ്യം ചെയ്യാം അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നു എനിക്കെല്ലാം എനിക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കി കഴിക്കണം അപ്പോൾ ഞാനെന്തു ചെയ്യും വെറൈറ്റി വെറൈറ്റിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക എനിക്കിഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതൊരു കുടുംബത്തിലെല്ലാവർക്കും അറിയാം അവർ സപ്പോർട്ടാണ് ഓക്കേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നീ അതുണ്ടാക്കുമോ എന്നു ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മളുണ്ടാക്കുന്നത് അവർക്കിഷ്ടമാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും കൂടില്ലേ എന്താണെന്നു വെച്ചാൽ ചെയ്യാം അമ്മ സഹായിക്കാം എന്നൊക്കെ വീട്ടിൽ പറയുമ്പോൾ ഓക്കെ നമ്മൾ മെയിൻ മെയിൻ ഷെഫ്ഫായിട്ട് നിന്ന് എല്ലാം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക അതൊരു വിനോദത്തിലേക്ക് പിന്നെ ഒരു എന്താ പറയുക നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നാണ് ആരും അടിച്ചമർത്തുകയല്ല നമ്മൾ പഠിക്കുകയെന്ന് പറയുമ്പോൾ അതൊരു അടിച്ചമർത്തലാണ് പക്ഷേ നമ്മൾ ഓരോന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതൊരു വിനോദമായിട്ട് മാറും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും എല്ലാംകൊണ്ട് നമ്മളതിനെ നൂറു ശതമാനം പെർഫെക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക